അസീസി നാടകത്തിനെ കുറിച്ച് ചോദിക്കാനാണ് നിന്നെ വിളിച്ചത് അത് എങ്ങനെയുണ്ട് അത് നല്ലതാണോ നാടകത്തിൻ്റെ അതിൻ്റെ അവലോകനങ്ങൾ ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നിനക്ക് പറയാൻ അഭിനേതാക്കൾ എങ്ങനെയാണ് നല്ല കഥയാണോ എനിക്ക് വീട്ടീന്ന് എല്ലാവരും ആയിട്ടൊന്ന് കാണാൻ പോകാൻ വേണ്ടിയിട്ട് ആയിരുന്നു നിന്നോട് ചോദിക്കുന്നത് ആ ഓക്കെ എങ്ങനെയുണ്ട് നല്ലതാണല്ലേ എങ്ങനെ കഥ കാണാൻ പറ്റുന്നത് ആണോ കുടുമ്പത്തോടെ ആ അപ്പം എനിക്ക് എത്ര മൂന്ന് മണിക്കൂറല്ലേ ഉടനെ ടിക്കറ്റ് നമുക്ക് കിട്ടുമോ എനിക്ക് ഒരു പത്ത് ടിക്കറ്റ് വേണമായിരുന്നു എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആ കുഴപ്പമില്ലല്ലേ ഓക്കെ ഓക്കെ അങ്ങനെ വൈകിട്ടല്ലേ ഉം അപ്പം നാളെ പോയാൽ നമുക്ക് കിട്ടും ആയിരിക്കും അല്ലേ ടിക്കറ്റ് ആ ശരി